അഴിമതി നിയന്ത്രിക്കുവാന് ഇന്ന് സർക്കാറെടുക്കേണ്ട ഏറ്റവും വലിയ നടപടി അഴിമതി നിന്ത്രിക്കുവാന് നമ്മള് ഏറ്റവും കൂടുതൽ നമ്മള് സർക്കാരോഫീസുകളിൽ ചെല്ലുമ്പോൾ നമുക്ക് അറിയാം നമ്മളൊരു കാര്യമായിട്ട് ബന്ധപ്പെട്ട് നമ്മളവിടേക്ക് ചെല്ലുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മളോട് കൈക്കൂലി വാങ്ങിയാണ് അവർക്ക് കിട്ടുന്ന ശമ്പളത്തിനോടൊപ്പം തന്നെ അവരതും കൂടാതെ നമ്മളോട് കൈക്കൂലി വങ്ങിച്ചാണ് ഓരോ കാര്യങ്ങൾ അവര് നമുക്ക് നടത്തി തരുന്നത് ഇങ്ങനെയുള്ള അഴിമതികള് നമ്മള് നമ്മുടെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും വിറ്റു പെറുക്കി ആയിരിക്കും നമ്മളോരോ കാര്യങ്ങള് നടത്താൻ ഓഫീസുകള് മുഴുവൻ കയറി ഇറങ്ങുന്നത് അങ്ങനെ കയറി ഇറങ്ങി ചെല്ലുന്ന ഓഫീസുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് നമ്മളോട് കൂടുതൽ തുകയാണ് അവരാവശ്യപ്പെടുന്ന ആ തുക നമുക്ക് ആ തുക നമുക്ക് ഒന്നും ചെയ്യാനല്ല ആ നമ്മള് വണ്ടിക്കൂലിയും മുടക്കി നമ്മളവരുടെ മുൻപിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മളോട് വീണ്ടും അവർ ആവശ്യപ്പെടുന്ന കൈക്കൂലി ആ കൈക്കൂലിയൊന്നും നമുക്ക് മുടക്കാൻ പോലും പറ്റുന്നതല്ല എങ്കിൽ പോലും അവരത് നമ്മുടെ കയ്യിൽ നിന്ന് ഇപ്പോൾ സർക്കാരോഫീസുകളിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ അവര് നമ്മളോട് ആ കൈക്കൂലികളെല്ലാം മേടിക്കുകയാണ് ചെയ്യുന്നത് എൻ്റൊരഭിപ്രായത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ കൈക്കൂലിയില്ലാതെ തന്നെ നമ്മളേത് സ്ഥാപനത്തിൽ കയറി ചെല്ലുമ്പോഴും കൈക്കൂലിയില്ലാതെ നമ്മളൊരു കാര്യം ചെയ്യാൻ അവിടെയുള്ള ഉദ്യോഗസ്ഥരെപ്പോഴും നമ്മളിപ്പോൾ ഉദ്യോഗസ്ഥരെപ്പോഴും ഒരു നിർബന്ധിതരാകണം നമ്മള് പാവങ്ങളാണ് അപ്പോൾ കാശുള്ളവര് കാണും കാശില്ലാത്തവര് കാണും പാവപ്പെട്ടവര് കാണും ഇത് അ പാവപ്പെട്ടവരൊക്ക ചെല്ലുമ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ നടത്തി കൊടുക്കുക അവരെ പോലെ അവർക്ക് ശമ്പളത്തിനോട് ഗവൺമെൻറ്റ് ശമ്പളം കൊടുക്കുന്നതിനോടൊപ്പം തന്നെ പാവങ്ങളെ പോലുള്ള നമ്മളുടെ കയ്യിൽ നിന്ന് പിഴിഞ്ഞെടുക്കുന്ന പൈസയും കൂടെ ആണവര് മുതലാക്കുന്നത് അതേ സമയം അവർക്കാ പൈസ കിട്ടും നമുക്ക് എത്ര നാള് നമ്മുടെ കൃഷിയിടങ്ങളിൽ പണിയെടുത്ത് കിട്ടുന്നാദായങ്ങൾ വിറ്റുപെറുക്കി ആയിരിക്കും നമ്മൾ അല്പം പൈസാ സമ്പാദിച്ചെടുക്കുന്നത് ആ പൈസ നമ്മളൊരു സ്ഥാപനങ്ങളിൽ ചെല്ലുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കില് മറ്റൊരു കാര്യം വേണ്ടി നേടിയെടുക്കാൻ വേണ്ടി നമ്മളോരോ സ്ഥലത്ത് കുടെ ചെല്ലുമ്പോൾ അവര് നമ്മളോട് പൈസകളെല്ലാം മേടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ മേടിച്ചെടുക്കുമ്പോൾ അതൊത്തിരി നമ്മള് ഇങ്ങനെ അഴിമതി കാ മൂലം ചെയ്യുന്നാൾക്കാർക്ക് നമ്മളൊരു കാര്യത്തിന് വേണ്ടി ചെല്ലുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്നെല്ലാം മുടങ്ങി പോകുന്ന പൈസകള് നമുക്ക് തിരിച്ച് പിടിക്കാൻ പറ്റുന്നില്ല അവര് നമുക്ക് തിരിച്ച് തരുന്നും ഇല്ല അപ്പം അത് നമുക്ക് ഭയങ്കരമായിട്ടൊരു ബുദ്ധിമുട്ടാണുണ്ടാക്കുന്നത് ഈ ബുദ്ധിമുട്ടുകളെല്ലാം മാറ്റിയെടുക്കുന്നതിന് നമുക്ക് അങ്ങനെ നമുക്ക് ഒരു ഒരു നം കൂട്ടായിട്ട് നമ്മള് പരിശ്രമിക്കേണ്ടതാണ് അതൊക്കെ നമ്മളാദ്യമെ തന്നെ അത് നമ്മുടെ ഒരു കാര്യം നടത്തി കിട്ടാൻ അവര് മറ്റുള്ളവരൊര് കാര്യം നമ്മളോട് പറഞ്ഞാൽ നമുക്കത് സാധിച്ച് കിട്ടണമെങ്കിൽ നമ്മളത് എത്രമാത്രം ബുദ്ധിമുട്ടുകള് സഹിച്ചായിരിക്കും നമ്മളോരോ കാര്യങ്ങള് നേടിയെടുക്കുന്നതെന്നൊര് ചിന്ത നമുക്കുണ്ടാകണം അല്ലെങ്കിൽ അവരതും ഓർക്കണം എത്ര എത്രയോ ദിവസങ്ങള് നമ്മള് ഓഫീസുകള് കയറി ഇറങ്ങി ആയിരിക്കും നമ്മളൊര് കാര്യം സാധിച്ചെടുക്കാൻ പോകുന്നത് എങ്കിൽ മറ്റുള്ളവര് അത് നമ്മള് പാവങ്ങളോട് നം ആ രീതിലവര് പെരുമാറുന്നു പക്ഷേ ഇച്ചിരെ കാശുള്ളവര് ആണെങ്കിൽ അവർ അഴിമതി നടത്തിയാലും കുഴപ്പമില്ല അവരുടെ കയ്യിൽ നിന്ന് പൈസാ പിരിച്ചാലും അവർക്കൊരു കുഴപ്പവുമില്ല ആ ഒരു കാര്യ നടത്തി കൊടുക്കുന്നു അങ്ങനെ നടക്കുന്ന സാഹചര്യങ്ങളിൽ പാവങ്ങളായിട്ടുള്ള നമ്മൾ മനുഷ്യരെ പറ്റിക്കുന്നത് ഇതൊക്കെ നിർത്തി നല്ല രീതിയില് നമ്മള് ഓഫീസുകളിലും മറ്റു കാര്യങ്ങളിലൊക്കെ ചെ കടന്ന് ചെല്ലുമ്പോൾ അവർ ന വേണ്ട വിധത്തിൽ നമ്മളേയൊന്ന് പരിഗണിക്കുകയും അതുപോലെ തന്നെ നമ്മളും അവരെ പോലെ ഒരാളാണെന്ന് കണ്ടെത്തുകയും ചെയ്താല് ഈ അഴിമതികളെല്ലാമിവിടെ നില് നിന്ന് പോകുകയും എല്ലാവർക്കുമൊരു സഹകരണ മനോഭാവം ഉണ്ടാവുകയും അങ്ങനെ നല്ല രീതിയില് മുൻപോട്ട് പോകാന് സാധിക്കുകയും ചെയ്യുന്നു അതാണ് ഏറ്റവും നല്ല അതാണ് ഏറ്റവും നല്ല എളുപ്പമായ മാർഗ്ഗം ഇതിന് നമുക്ക് നല്ലവരായി മനുഷ്യര് ജീവിക്കുന്നതിന് നമ്മ ൾടെ പരിശ്രമങ്ങൾ ഏറ്റവും അത്യാവശ്യകരമാണ് നമുക്ക് ചെയ്യാവുന്ന നല്ല നല്ല പ്രവർത്തികളാണ് നമ്മളെയൊരു നമ്മളൊരു വ്യക്തിയെ തെരഞ്ഞെടുക്കുമ്പോൾ സമൂഹത്തിന് വേണ്ടുന്ന ഒരു വ്യക്തിയെ നമ്മള് തെരഞ്ഞെടുക്കുമ്പോൾ ആ വ്യക്തി നമുക്ക് വേണ്ടിയിട്ട് ചെയ്തു തരുന്നത് നമ്മളെ ചിരിച്ച് കാണിച്ച് നമ്മളോട് വോട്ടും ചോദിച്ച് പോകുന്നവരായിരിക്കും നമ്മളവിടെ ഓഫീസ് നമ്മൾ അവരുടെ അടുത്ത് ചെന്ന് കഴിയുമ്പം നമ്മളോട് പെരുമാറുന്ന രീതി തന്നെ വളരെ മോശം പെട്ടതൊരു രീതിയായിരിക്കും നമുക്ക് അതവരിൽ നിന്നൊൾക്കൊള്ളുമ്പോൾ വളരെയേറെ ബുദ്ധിമുട്ടുകള് നമുക്ക് തോന്നുന്നു നല്ല രീതിയില് പോകുന്നതിന് അതുപോലെ തന്നെ നമ്മളെ പരിശ്രം നമുക്ക് വേണ്ട രീതിയില് പരിശ്രമങ്ങൾ അവര് നമ്മളെ സഹായിക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത് ഒരോര ഉദ്യോഗസ്ഥരെ ഇങ്ങനെയുള്ളവരെയൊക്കെ മാറ്റി വിടണമെന്നാണ് ഞാനാഗ്രഹിക്കുന്നത്